കേരളത്തില് പൊതുവേ തെക്കുപടിഞ്ഞാറന് മണ്സൂണാന്നു അധികമായിട്ടും മഴ ലഭിക്കണത് അത് ജൂണില് തുടങ്ങിയിട്ട് സെപ്റ്റംബര് അവസാനത്തോടെയാണ് ഈ തെക്കുപടിഞ്ഞാറന് മണ്സൂണ് കേരളത്തില് അനുഭവപ്പെടാറുള്ളത് ഈ കാലയളവിലാണ് കേരളത്തില് ഏറ്റവും കൂടുതല് മഴയും ലഭിയ്ക്കാറുള്ളത് പിന്നെ ഈ തെക്കുപടിഞ്ഞാറന് മണ്സൂണിന്നു മഴ ലഭിച്ചില്ലാന്ന് പറഞ്ഞാൽ കേരളം നീണ്ട വരൾച്ച യിലേക്കാണ് പോവാന് സാധ്യത വടക്ക് കിഴക്കന് മണ്സൂണിന്നു അധികം മഴ കേരളത്തില് ലഭിയ്ക്കാറില്ല ഉച്ച കഴിഞ്ഞ് സ് പെയ്യാറുള്ള ഇടിയോട് കൂടിയ മഴയാണ് പിന്നെ കേരളത്തില് ലഭിയ്ക്കാറ് തമിഴ് നാടിനാണ് ഏറ്റവും കൂടുതല് വടക്ക് കിഴക്കന് മൺസൂണിന്നു മഴ ലഭിക്കണതു കേരളത്തിന് പൊതുവേ കുറവാണ് ഈ ജൂണ് ടു സെപ്റ്റംബര്ലാണ് വെള്ളപ്പൊക്കങ്ങളും ഉരുള്പൊട്ടല് പോലുള്ള സംഭവങ്ങളോക്കെ കേരളത്തില് നടക്കാറ്